കേരളത്തിലെ വിദ്യാഭ്യാസം തന്നെയാണ് മുന്നിട്ടു നിൽക്കുന്നത് അതും വൈകല്യം ഉള്ളവർക്കും എന്നാൽ വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് പ പ്രത്യേകം വേറൊരു എന്താണ് അവർക്കായി സ്പെഷ്യലായി ഇങ്ങനത്തെ സ്കൂളുകളൊക്കെ ഉണ്ട് അവർക്കും നല്ല രീതിയിലുള്ള വിദ്യഭ്യാസം ഇപ്പോൾ കിട്ടുന്നുണ്ട് അ അവർക്കു വേണ്ട പ്രോഗ്രാമ്മുകൾ അവർക്കുവേണ്ട ആക്ടിവിറ്റീസുകൾ എല്ലാം തന്നെ അവർക്ക് അവ അവർക്കുകൊടുക്കുന്നുണ്ട് എന്താണ് അവർക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ തന്നെ ഇപ്പോൾ വൈകല്യമുള്ളവർക്കും എത്ര പേർ ടീച്ചേർസ് അങ്ങനെ പല മേഖലകളിലുള്ള അവരുമുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം അങ്ങനെ വൈകല്യം അത് നോക്കി കൊടുക്കുന്നില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഇത് അനുസരിച്ച് വൈകല്യമുള്ളവർക്കും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അവരിൻ്റേതായ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരിത് സ്റ്റേജുകളും നൽകാറുണ്ട്